ആ ചേട്ടാ എത്ര രൂപയാണ് പിന്നെയ് ഞാൻ എൻ്റെ കയ്യില് ഫോൺ പേ ജി പെ അല്ലെങ്കിൽ പേ ടി എം ഗൂഗിൾ പേ ചെയ്യാം എന്നാല് അമ്പത് രൂപ ഗൂഗിൾ പേ ചെയ്യാം എന്നാല് ചേട്ടാ അത് നെറ്റ്വർക്ക് എറർ ആണല്ലോ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഞാനെന്നാല് വേറെ പിന്നെ ഫോൺ പേം കൂടെ ഒന്ന് നോക്കാം ഫോൺ പേ ഫോൺ പേയിലും അത് തന്നെയാ ചേട്ടാ പ്രശ്നം നെറ്റ്വർക്ക് കാണിക്കുന്നില്ല ഞാനെന്നാല് എന്റെ കയ്യിലെത്ര രൂപയുണ്ടെന്ന് നോക്കിയിട്ട് എന്നാല് അങ്ങനെ തരാം അല്ലേ ചേട്ടാ നോക്കിയപ്പോള് അമ്പത് രൂപ തികച്ചില്ലല്ലോ ഏട്ടാ ഒരു നാല്പത്തിയഞ്ച് രൂപയേ ഉളളൂ അത് തന്നാല് മതിയോ ചേട്ടാ ഇതൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് പ്രശ്നമായിപ്പോയത് അമ്പത് രൂപ തികച്ചില്ല ഞാൻ നാല്പത്തിയഞ്ച് രൂപ തരാം ചേട്ടാ